നമ്മളിപ്പോള് അതിരാവിലെ എഴുന്നേല്ക്കുക അതായത് നമ്മളിപ്പോള് ആദ്യം പോയി ചെയ്യുന്നത് നമ്മള് പല്ലു തേക്കുക പല്ലു തേക്കാന് നമ്മള് പല്ലു തേക്കണമെങ്കില് കുറച്ചു വെള്ളം വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കു മുഖം കഴുകാൻ വെള്ളം വേണം ഇപ്പോള് രാവിലെ ഇപ്പോള് പതിവായി കുളിക്കുന്നവരുണ്ട് കുളിക്കാത്തവരുണ്ട് പിന്നെ കുളിക്കുന്നതിനാണെങ്കില് കുളിക്കാനുള്ള വെള്ളം വേണം ഇപ്പോള് രാവിലെത്തെ ഇപ്പോള് ഒരു ബക്കറ്റ് വെള്ളം അതിന് യൂസെയ്യും പിന്നെ അതു കഴിഞ്ഞിട്ട് നമ്മളിപ്പോള് കുളിച്ച് തോര്ത്തിക്കഴിഞ്ഞാല് അതുകഴിഞ്ഞ് പിന്നെ നമ്മള് കഴിക്കാൻ പോകും കഴിച്ചുകഴിഞ്ഞിട്ട് പിന്നെ നമ്മള് അതു കഴിഞ്ഞാല് നമ്മള് കൈ കഴുകാൻ വരും കൈ കഴുകാന് വെള്ളം വേണം പിന്നെ നമ്മളിപ്പോള് ഇപ്പോള് എന്തേലും അടുക്കളയിലോ നമ്മളല്ലേ വെളിയിലോ എന്തേലും ജോലി ചെയ്യാന് പോവുകയാണെങ്കില് നമ്മളിപ്പോള് അവിടെപ്പോയി ജോലി ചെയ്യുകയാണെങ്കില് നമ്മളത് കഴിഞ്ഞു വിയര്ക്കത്തില്ലേ വിയര്ത്തു കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചുവരുമ്പോള് എന്തുവായാലും നമ്മള് നല്ല രീതിയില് വിയർത്തിരിക്കുകയാണ് അപ്പോള് അതിനു നമ്മള് മുഖം കഴുകാൻ വെള്ളം വേണം നമ്മളിപ്പോള് മുഖം കഴുകാന് വെള്ളം ചൂസ് ചെയ്യുമ്പോള് എന്ത് അതിൻ്റെ കൂടെ നമ്മള് ഫേയ്സ് വാഷും യൂസെയ്യും ഫേസ് വാഷിട്ട് നമ്മള് നല്ല രീതിയില് സ്ക്രബ് ചെയ്ത് നമ്മള് ഫേയ്സെല്ലാം നല്ല രീതിയില് ക്ലീനാക്കാന് വേണ്ടിയിട്ട് നമ്മള് ഫേയ്സ് വാഷ് ആദ്യമിട്ട് ഫേയ്സ് വാഷിട്ട് കഴിഞ്ഞിട്ട് നമ്മളത് കഴിഞ്ഞിട്ട് നമ്മള് ഫേയ്സിലോട്ട് നമ്മള് നല്ല രീതിയില് വെള്ളം തളിക്കും വെള്ളം തളിച്ചുകഴിഞ്ഞിട്ട് നമ്മള് ഫേയ്സപ്പം നല്ല ഡൾനെസ്സ് മാറി ക്ലിയറായിട്ട് വരും നമ്മള് അതിനുമപ്പോള് വെള്ളം യൂസ്സേയ്യും പിന്നെ അതു കഴിഞ്ഞിട്ട് നമ്മള് ഇപ്പോള് ഉച്ചയ്ക്കത്തെ ഭക്ഷണം ആഹാരം കഴിക്കണമെങ്കിൽ നമ്മള് ആദ്യം പോയി വായ കഴുകും അല്ലെങ്കില് മുഖം കഴുകും നമ്മള് ക്ഷീണമെന്തെങ്കിലും ഉണ്ടെങ്കില് മുഖം കഴുകും പിന്നെ നമ്മള് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് പോയി കൈ കഴുകും പിന്നെ മുഖം കഴുകും പിന്നെ നമ്മള് നമ്മള് വെളിയിലിറങ്ങുകയാണെങ്കില് നമ്മള് ഇപ്പോള് ഉച്ച കഴിഞ്ഞിട്ട് നമ്മള് വെളിയിലറങ്ങുകയാണെങ്കില് ഈ നാലു മണി സമയം നമ്മള് വെളിയിലിറങ്ങുകയാണെങ്കില് നമ്മള് ചെടിക്കൊക്കെ വെള്ളമൊഴിക്കും ചെടിക്ക് വെള്ളമൊഴിക്കാനിപ്പോള് വെള്ളം വേണം പിന്നെ നമ്മുടെ ഇപ്പോള് വെളിയിലത്തെ നമ്മള് വീട്ടില് വണ്ടി ഉണ്ടെങ്കില് വണ്ടി കഴുകാന് വെള്ളം വേണം പിന്നേ ഓരോ ആവശ്യങ്ങൾക്ക് ഇങ്ങനെയാണ് ഇപ്പോള് നമ്മളിപ്പോള് ബാത്റൂമില് പോവുകയാണെങ്കില് ബാത്റൂമില് ആവശ്യങ്ങൾക്ക് നമുക്കു വെള്ളം വേണം പിന്നെ നമ്മള് ഇപ്പോള് ദൂര യാത്രയോ ഒക്കെ പോവുകയാണെങ്കിൽ നമ്മള്ക്കു ഒരു കുപ്പിയല്ലേ ഈ രണ്ട് മൂന്ന് കുപ്പിയിലും മൂന്നു കുപ്പി വെള്ളം നമ്മള് എപ്പോഴും ശേഖരിച്ച് നമ്മള് കയ്യില് വയ്ക്കാറുണ്ട് പിന്നെ നമ്മള് ഇപ്പോള് മുറ്റത്ത് നമ്മൾക്കിപ്പോള് വലിയ വലിയ ചെടികളുണ്ട് അല്ലെങ്കില്പ്പോട്ടെ നമ്മുടെ വീടുപണിയാൻ വീടുപണി നടക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം വേണം അതിൻ്റെ സിമന്റൊക്കെ കുഴയ്ക്കണമെങ്കില് നമുക്ക് വെള്ളം വേണം ഈ ജലം എന്നുവച്ചാല് ഭയങ്കര എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിവരുന്ന സാധനമാണ് ജലം ഇപ്പോള് വെള്ളമെന്നു പറയാൻ എല്ലാ എല്ലാവർക്കും വേണ്ടിയതാണ് വെള്ളം എല്ലാത്തിനും നമ്മളിപ്പോള് കഴിക്കാനുണ്ടാക്കുന്ന സാധനമായാലും അതിനെല്ലാത്തിനും വെള്ളം യൂസെയ്യാറുണ്ട് ഇപ്പോഴും നമ്മളിപ്പോള് കഴിക്കാൻ യൂസ്സേയ്ന്ന സാധനങ്ങലൊഴിച്ചാല് ഈ ഇപ്പോള് തക്കാളിയെല്ലാം അരിഞ്ഞിട്ടു ഉപ്പും മുളകു പൊടിയെല്ലാമിട്ടു കഴിഞ്ഞിട്ട് അതു കഴിഞ്ഞിട്ട് നമ്മളെല്ലാം വെള്ളം ലാസ്റ്റ് യൂസെയ്യാറുണ്ട് അതെല്ലാം ഇട്ടൊന്നു കലക്കാന് പിന്നെ നമ്മുടെ പാത്രം കഴുകാന് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മള് കാര് കഴുകാന് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോള് വീടിൻ്റെ സൈഡ് വശത്തൊക്കെ വൃത്തികേടാണെങ്കില് നമ്മള് അതിനുമൊക്കെ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് വെള്ളം ഇപ്പോള് ഇതെല്ലാം അടിച്ചുകളയും പിന്നെ നമ്മുടെ ഇപ്പോള് ഇനി രാവിലെ മുതല് രാത്രി വെള്ളം രാത്രി വരെയും എന്തേലും വെള്ളം വേണം നമ്മളിപ്പോള് ദാഹിക്കുകയാണെങ്കില് ഈ ദാഹം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മള് വെള്ളം കുടിക്കാറുണ്ട് പിന്നെ നമ്മള് എന്ത് എന്ത് നമുക്ക് ക്ഷീണമാണേലും ഉണ്ടെങ്കിലും നമ്മളെപ്പഴും വെള്ളമാണു കുടിക്കാറ് എല്ലാം നമ്മളാദ്യം പോയാല് വെള്ളമാണു കുടിക്കാറുള്ളത് നമുക്കെന്തേലും ക്ഷീണമോ നമ്മളേതേലും വയ്യാഴികയോ എന്തേലുമുണ്ടെങ്കില് നമ്മളിപ്പോള് ബോധം കെട്ട് താഴെ വീഴുകയാണെങ്കിലും നമ്മള് നമ്മുടെ മുഖത്ത് ആദ്യം വെള്ളമാണ് ഒഴിക്കാറ് ചെയ്യാറ് പിന്നേ നമ്മള് ഇപ്പോള് വൈകുന്നേരം കഴിച്ചുകഴിഞ്ഞാല് നമ്മള് ആദ്യം പോയി കൈ കഴുകും നമ്മള് പിന്നെ കിടക്കാന് നേരത്ത് വേണമെങ്കില് കുളിക്കും പിന്നെ പിന്നെ നമ്മള് ഉം നമ്മള് കൈ രാവിലെ പല്ലു തേച്ചിട്ട് വായ കഴുകാന് വേണ്ടിയിട്ട് നമ്മള് വായ കുലുക്കുഴിയണ്ടേ അപ്പോള് അതിന് വെള്ളം യൂസ് ചെയ്യും എല്ലാത്തിനും വെള്ളം യൂസ് ചെയ്യാറുണ്ട് അപ്പോള് വെള്ളം എന്നു പറയുന്ന ഒരു ഒരു സംഭവമെന്നുവച്ചാല് എല്ലാം വേണ്ടതാണ് അതിനുവേണ്ടി എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് നമ്മള് കടയിലൊക്കെപ്പോയാലും നമുക്ക് കുപ്പിവെള്ളം കിട്ടും നമ്മളിപ്പോള് വെളിയിലോട്ടിറങ്ങിയാലും നമ്മള് ഇപ്പോള് ഭയങ്കര ചൂടാണെങ്കില് നമ്മള് കുപ്പിവെള്ളം മേടിക്കും വെള്ളം ഭയങ്കര അമൂല്യമാണ് പക്ഷേ ചില സമയത്ത് നമുക്ക് കിട്ടാണ്ട് വരും പക്ഷേ ആ സമയത്തൊക്കെ നമുക്കു വേണ്ടിവരുന്ന ആവശ്യങ്ങള് വേറെയാണ് വേണ്ടിവരുന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മളാ സമയത്തൊക്കെ ഓരോ സ്ഥലത്തു പോയി വെള്ളം തപ്പുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യും പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്നു വച്ചാല് ഏറ്റവും കൂടുതല് വെള്ളമാണ് വെള്ളമില്ലാതെ നമ്മുടെ തൊണ്ട ഒക്കെ വറ്റി ഇപ്പോള് പിന്നെ നമ്മളിപ്പോള് കാര് കഴുകാനും നമ്മുടെ ഇപ്പോള് കസേര കഴുകാന് ഓരോ സാധനങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മള് വെള്ളമൊക്കെ യൂസ് ചെയ്യാറുണ്ട് താങ്ക്യൂ